ഇപ്പോഴത്തെ കാലത്ത് കരകൗശല മണ്പാത്രനിര്മ്മാണം മരപ്പണി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുതിയ ജനറേഷന് ആള്ക്കാരൊന്നും അധികം അതിൽ ഇല്ല പക്ഷെ എന്നാലും പണ്ടു കാലത്ത് ഇപ്പോൾ പാരമ്പര്യമായിട്ടു ചെയ്തുവരുന്ന ചില കുടുംബങ്ങൾ ഇപ്പോഴും അതൊക്കെത്തന്നെ ചെയ്യുന്നവരുണ്ട് അതിനെക്കുറിച്ച് അവര്ക്കു മാത്ര അറിയത്തുള്ളു പക്ഷെ എന്നാലും ഇങ്ങനത്തെ കുറേ കാര്യങ്ങള് നിലനിര്ത്തിക്കൊണ്ട് പോകാനായിട്ടും പുതിയ തലമുറയില് കുറേ ആള്ക്കാർ ശ്രമിക്കാറുണ്ട് അവർ ഇപ്പം കരകൗശല ഈ മണ്പാത്രനിര്മ്മാണം അല്ലെങ്കിൽ ഈ കൊത്തുപണി മരപ്പണി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ ആള്ക്കാര്ക്ക് ഇൻട്രസ്റ്റൊക്കെ ഉണ്ട് പക്ഷേ ചെയ്യുന്ന ആള്ക്കാർ വളരെ കുറവാണ് പണ്ടത്തെ ആള്ക്കാർ തന്നെയാണ് ഇപ്പോഴും കൂടുതൽ ചെയ്യാറുള്ളത് ഇപ്പോഴത്തെ ആള്ക്കാരല്ല പക്ഷെ എന്നാലും ഇതിനെല്ലാവരും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് ഇതിന്റെ ആ ഒരു ഈ വൈഗത്യം ആ ഒരു സംഭവം കിട്ടണമെന്നുണ്ടെങ്കില് അതിനു നമ്മൾ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങള് അറിഞ്ഞിരിക്കണം പക്ഷെ എന്നാലും പുതിയ തലമുറക്ക് കൂടുതലും ടെക്നോളജിക്കലി ബേസ്ട് ആയിട്ടുള്ള കാര്യങ്ങളോട് ഇൻട്രസ്റ്റ് ഉള്ളതു കൊണ്ടും ഇപ്പോഴത്തെ കാലത്ത് അധികം ആരും ഇത് ചെയ്യാറില്ല